പൊന്നു ചേച്ചീ ഞാൻ ഓൺലൈനിലായി ഒരു സാരി ബുക്ക് ചെയ്തേ അത് എനിക്ക് പറഞ്ഞ ഡെയ്റ്റിലേറ്റം കിട്ടിയതും ഇല്ല എന്താ കിട്ടിയപ്പം അതാണെങ്കിൽ മോശം പിടിച്ച സാരിയ എന്താ എനിക്ക് ഞാൻ ഓർഡർ ചെയ്തപോലുള്ളൊരു സാരിയെ കിട്ടിയില്ല അതിൻ്റെ വർക്കും എല്ലാ ഡിസൈൻ എല്ലാം വേറെയായിരുന്നു പിന്നെ അത് ഒരു രണ്ടു വട്ടം വാഷ് ചെയ്തപ്പളേ അത് എല്ലാം അതിൻ്റെ ഗിൽറ്റ് എല്ലാം പോയി അതിന്മേൽ കുറച്ച് വർക്കുകളിണ്ടായിന്നു അതും എല്ലാം തേഞ്ഞു പോയി എന്താ പിന്നെ ഞാനതൊരു ഫങ്ക്ഷന് പോയപ്പോൾ അത് ഉടുത്തിരുന്നു അപ്പോൾ അവിടെയുള്ള എൻ്റെ കസിൻസും ബ്രദേഴ്സും എല്ലാവരും പറഞ്ഞു എന്നോട് എവിടുന്നാണ് നീയിത് വാങ്ങിയത് എനിക്ക് കണ്ടിട്ട് പഴയ സാരി പോലെ തോന്നുന്നു എന്താ പറയുക അത് ഒരു ഒരു ഒരു ഗുണം ഇല്ലാത്തൊരു സാരി ഒരു നല്ല തുണി ഒന്നും അല്ല ഞങ്ങൾ വാങ്ങിയ ആപ്പ് അങ്ങോട്ട് കൊടുത്തയക്കാൻ നേരത്ത് അവർ പറഞ്ഞു ഇത് പറ്റില്ല അങ്ങോട്ട് കൊടുത്തുകഴിഞ്ഞ് പിന്നെയത് അങ്ങോട്ട് എടുക്കില്ലാന്ന് പറഞ്ഞു പിന്നെ അതിന്മേൽത്തെ ഡിസൈനും മൊത്തം എല്ലാ സാനങ്ങളും കമ്പ്ലീറ്റ് പോയി